ആ ഹലോ സാറേ ആ അതേ അതേ അതേ ആ അത് ഞാൻ ജോലിയിലായിരുന്നു സാറേ ആ ഓ ഓ ഓ ആ ഓക്കെ ഓ ഓ

ആ ആ ആ ആ

ഞാന് ടെൻത് വരെ പോയതാണ് സാറേ

ആർക്ക് സാറേ ഇവനോ

ആ ആ ആ ഓ ഓ ഓ ആ ആ

ആ സാറേ അത് ഇനി ശ്രദ്ധിക്കാം സാറേ

അപ്പം സാറേ ഇത് ഇവനെ ഇനി എസ് എസ് എൽ സിക്ക് ഇരുത്താൻ വല്ല വഴിയുണ്ടോ ഇത് ഇപ്പം അവൻ പഠിച്ച അവനെ ആ ഓക്കെ ഓക്കെ സാറെ ഇത് ഇപ്പോൾ അവനെ നമ്മൾ ട്യൂഷന് വിടുന്നുണ്ട് പാലോട് വിടുന്നുണ്ട് അപ്പോൾ ആ ആ ആ

ഓ ശരി സാറേ അവൻ വരട്ടെ നമ്മൾ അത് ശരിയാക്കാം സാർ ഒന്ന് സാർ ഒന്ന് പറഞ്ഞേര് അവൻ്റെ അടുത്ത് വീട്ടിലും വീട്ടിലും അവൻ ഇങ്ങനെയൊക്കെത്തന്നെ സാറേ വീട്ടിലും ഈ ബഹളവും ഒക്കെ തന്നെ ഓ ഓ ശരി സാറേ